ഹലോ ഫ്ലിപ്കാർട്ട് കസ്റ്റമർ കെയർ അല്ലേ ഞാൻ ഈയിടെ അടുത്ത് നിങ്ങളുടെ ഓൺലൈൻ ഷോപ്പിങിൽനിന്ന് ഒരു ഷർട്ട് വാങ്ങിയിരുന്നു അതില്ൽ നാൽപ്പത് സൈസ് ആണ് ഞാൻ മാർക്ക് ചെയ്തിരുന്നത് എനിക്ക് ആ നാൽപ്പത് സൈസ്സ് തന്നെ കിട്ടി പക്ഷെ എനിക്കത് നന്നായി ഫിറ്റ് ആകുന്നില്ല എൻ്റെ മിസ്റ്റേക്ക് അല്ല ഞാൻ കൊടുത്ത നാൽപ്പത് തന്നെ നിങ്ങളുടെ മിസ്റ്റേക്കും അല്ല ഞാൻ കൊടുത്ത നാൽപ്പത് സൈസ്സ് തന്നെ എനിക്ക് കിട്ടി പക്ഷെ എനിക്കത് ഫിറ്റ് ആകുന്നില്ല ആ കമ്പനിയെ ബേസ് ചെയ്തിട്ടാണ് അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് റിട്ടേൺ ചെയ്യാൻ അതിൽ റിട്ടേൺ ചെയ്യുമ്പോഴ് ഞാനെന്ത് കാര്യങ്ങളാണ് അതിൽ രേഖപ്പെടുത്തേണ്ടത് എന്നൊന്ന് പറയാമോ ഇതിൻ്റെ റിട്ടേൺ സുഖമമാക്കാൻ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം നിങ്ങളത് എവിടെയാണ് പിക്കപ്പിന് വരിക അക്കാര്യങ്ങൾ കൂടിയൊന്ന് സംസാരിക്കാമോ ഇത് എത്രയും വേഗം റിട്ടേൺ ഒന്ന് സമർപ്പിക്കാൻ എന്നെ സഹായിക്കണം പ്ലീസ്സ്